ഞങ്ങളുടെ ഗ്രാമത്തിൽ ആരാധന മൂർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തൊട്ടടുത്തായിട്ട് മൂന്ന് അമ്പലമുണ്ട് അതിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ രണ്ട് ദേവിമാരാണ് ദുർഗ്ഗാ ഭഗവതിയും ഭദ്രകാളിയും അവിടെ ദേവിക്ക് ഒരു ഭദ്രകാളിക്ക് ആണെങ്കിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ മാലയാണ് ഇടിയിക്കുന്നത് ദുർഗാ ഭഗവതിക്ക് പിന്നെ തുളസിയും വെള്ള നന്ദ്യാർ വട്ടൊക്കെ കൂട്ടിയുള്ള മാല ഇടിയിക്കും പിന്നെ അവർക്ക് പാൽ പായസം രണ്ടു പേർക്കും പാൽപ്പായസമൊക്കെ കഴിപ്പിക്കും അങ്ങനെ അത് അവരുടെ അതിൽ അങ്ങനെയാണ് പിന്നെ വെള്ള നേദ്യവും കൊടുക്കും പിന്നെ വൈകുന്നേരമാണ് അവർക്ക് പായസത്തിൻ്റെ നേദ്യം ഉണ്ടാവുന്നത് അത് അങ്ങനെ കഴിക്കും പിന്നെ ശിവനും മഹാവിഷ്ണുവുമുള്ള ഒരു അമ്പലം ഉണ്ട് അവിടെ രണ്ട് കൊടിമരവും ഉണ്ട് ആ അമ്പലത്തിൽ എന്ന് പറയുന്നത് ശിവന് ദാരേം വെറുതെ വെള്ളം കൊണ്ടുള്ള ദാരയുണ്ടാവും പിന്നെ അത് കൂടാതെ പാൽ കൊണ്ട് നമുക്ക് ദാര അതിപ്പോൾ നമ്മുടെ ഒരേ കാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരുന്നതാണ് അപ്പൊൾ പാൽ കൊണ്ട് ദാര പിന്നെ ശിവന് കൂവളത്തിൻ്റെ മാല നന്ദ്യാർവട്ടത്തിൻ്റെ മാലയൊക്കെ ഇങ്ങനെ ശിവന് നമ്മൾ ശിവ ഭഗവാന് ധരിക്കും ധരിച്ചു ഇടിയിക്കുന്നത് പിന്നെ നേദ്യം അവർക്ക് ഉണ്ട് നേദ്യങ്ങളുണ്ട് വെള്ളച്ചോറ് ആണ് നേദ്യം കൊടുക്കുന്നത് സാധാരണ പിന്നെ എന്തെങ്കിലും ആൾക്കാർ ഇങ്ങനെ വഴിപാട് ആയിട്ട് കൊടുക്കുമ്പോഴാണ് പായസമൊക്കെ ചെയ്യുന്നത് അല്ലാണ്ട് എല്ലാ ദിവസവും നേദ്യം വെള്ള വെള്ള നേദ്യമാണ് നമുക്ക് ഭഗവാന്മാർക്ക് കൊടുക്കണേ പിന്നെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ട് മഹാവിഷ്ണുനെ മിക്കവാറും തുളസി മാലയാണ് ഇടിയിക്കാറ് തുളസി മാലയും ചെമ്പ മറ്റെ നന്ദ്യാർവട്ടവും പിന്നെ ബന്ധിടെ ഒക്കെ മാല ശി മഹാവിഷ്ണുവിനെ ധരിപ്പിക്കാറുണ്ട് മഹാവിഷ്ണുവിന് കൂടുതലും പാൽ പായസം നെയ്യ് വിളക്ക് അങ്ങനെയുള്ള ഇത്ളാണ് കഴിക്കാറ് ശിവൻ ശിവഭാഗവാന് പിന്നെ മുന്നിലും പിന്നിലും വിളക്ക് കത്തിക്കുന്നത് ഒരു വലിയ ഒരു ആചാരമാണ് മുന്നിലും പിന്നിലും വിളക്ക് കത്തിപ്പിക്കുന്നത്